ഹലോ ഹലോ കേൾക്കണില്ല്യല്ലോ ഹലോ ആ ഇത് ആ ഇത് ട്രാവലേജൻ്റല്ലേ ആ ഞാനൊരു ട്രിപ്പ് പോകാനാഗ്രഹിക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ചൊക്കെയുള്ളൊരു ഡീറ്റൈൽസൊക്കെ കിട്ടാൻ വേണ്ടീട്ട് വിളിച്ചതാണ് ആ ഇത് മല ഇത് മലപ്പുറത്ത്ന്നാണ് മൂന്നാർക്കാണ് ഒരൂ മൂന്ന് ദിവസത്തെ ഫാമിലീട്രിപ്പാണ് ആ അപ്പം നമുക്ക് സ്വന്തമായിട്ട് വാഹനങ്ങളൊന്നൂല്യ അപ്പം നമുക്കവിടെത്താനെന്താ ആദ്യത്തെ മാർഗം അതോങ്ങള് ഇവിടുന്നന്നെ പിക്ക് ചെയ്യുമോ എങ്ങനെയാണ് ഇങ്ങൾ സൗകര്യങ്ങൾ അതേപോലെ മൂന്നാറിലെ ക്ലൈമറ്റെന്താന്നൊക്കെ അറിയാൻ വേണ്ടീട്ടേയ്നു ആ എങ്ങനെ നമുക്ക് പോരെ എങ്ങനെ നിങ്ങൾ വാഹനസൗകര്യമുണ്ടോ ഉണ്ടല്ലേ ആ അപ്പം അവിടത്തെ ഈയട്ത്ത അതിൻ്റെ അടുത്താഴ്ച്ചേലൊക്കെന്നാ പറ്റുമോ ആ ഒരു പത്ത് പത്ത് മെമ്പേഴ്സുള്ള ഫാമിലിയാണ് അപ്പം നമുക്കൊരു റിസോട്ട് വേണം

ആ റിസോട്ട് വേണം അവിടിപ്പോൾ എങ്ങനെയാണ് ക്ലൈമറ്റ് തണുപ്പോ ചൂടോ

ആ ആ എന്നാൽ ഞാൻ പിന്നെ വിളിക്കണുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടീട്ട്ട്ടോ ഓക്കെ ശരി